കായികരംഗത്ത് പരാജയവും വിജയവുമൊക്കെ ഉണ്ട് അതേത് രംഗത്താന്നേലും പരാജയവും വിജയവുമൊക്കെ ഉണ്ട് കായികരംഗത്ത് നമുക്ക് വിജയം കൈവരിക്കണമെങ്കില് അതിന് തക്ക ശിക്ഷണം ലഭിക്കണം നല്ല പ്രാക്ടീസുണ്ടായിരിക്കണം കായികക്ഷമത വളർത്തണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോള് നമുക്ക് പ വിജയമുണ്ടാകും പിന്നിപ്പോള് എല്ലാത്തിനും എല്ലാരും ജി വിജയിക്കണമെന്നൊന്നും ഇല്ലല്ലോ പ പരാജയം വേണമല്ലോ ഇപ്പൊരു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിപ്പോള് പത്തുകുട്ടികള് വേ ഉണ്ടെങ്കില് അതില് ഒന്നും രണ്ടും മൂന്നും സ്ഥാനാമല്ലേ കിട്ടൂള്ളൂ അതുകൊണ്ട് നമുക്ക് പരാജയത്തില്നിന്നാണ് നമ്മള് വിജയത്തിലേക്കെന്ന് അത് അങ്ങ പരാജയപ്പെട്ടെങ്കിലേ നമുക്ക് പിന്നൊരു അടുത്ത പടിയായിട്ടുള്ളത് നമുക്ക് വിജയത്തിലേത്തെത്തിക്കാന്ന് അന്നേരം കൂടുതല് കൂടുതല് പിന്നേ പ്രാക്ടീസുകളും അല്ലെങ്കില് അതിനുവേണ്ട ശിക്ഷണങ്ങളൊക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ട് പരാജയം എന്നുപറഞ്ഞാല് അതിന് ഭീതി വേണ്ട അത് വിജയ പരാജയമെന്നു പറഞ്ഞാല് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടു പടി മാത്രമാണ് ഞാനും പഴയൊരൂ സ്പോ പിന്ന അത്ലറ്റിക് വോ ആയിരുന്നു നമ്മക്കുമങ്ങനെ പല പല പിന്നെ പരാജയങ്ങളുണ്ടായിട്ടുണ് പക്ഷെ ഓരോ പരാജയങ്ങളും നമ്മുടെ വിജയത്തിൻ്റെ മുന്നോടിയാണ് അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കണം പ്രയത്നിച്ചെങ്കില് മാത്രമേ നമുക്ക് കൂടുതല് വിജയങ്ങൾ കൈവരിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പരാജയപ്പെട്ട എന്നുവച്ച് മനസ്സ് വേദനിക്കുകയോ ഒന്നും ചെയ്യാന് പാടില്ല അതിനു വേണ്ട ശിക്ഷണങ്ങളൊക്കെ നല്ല രീതിയില് കിട്ടിക്കഴിഞ്ഞാല് നമുക്കേത് പരാജയവും വിജയമാക്കിത്തീർക്കാൻ സാധിക്കും